മലയാള ഭാഷയില് അങ്ങനെ ട്രാൻസിലേറ്റ് ചെയ്യേണ്ട ക ആവശ്യം വന്നിട്ടുണ്ട് ബട്ട് അങ്ങനെ എപ്പഴും അങ്ങനെ ചെയ്യാറൊന്നും ഇല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ച കാലം ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഞാൻ മൂന്നാം ക്ലാസ്സില് നാലാം ക്ലാസ് തൊട്ടാണ് മലയാളം പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ സാധാരണ കുട്ടികളൊക്കെയാണെങ്കിൽ അത്യാവശ്യം ഒന്നാം ക്ലാസ്സില് കെ ജിയില് തൊട്ടാണ് പഠിച്ചു തുടങ്ങിയത് അപ്പം അതിൻ്റെതൊക്കെയായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മലയാളത്തില് കുറച്ച് വാക്കുകളൊക്കെ കിട്ടാണ്ട് വരും ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതൊക്കെ ആവശ്യം വരുവാണെങ്കിൽ അതിന് വാക്കുകളൊക്കെ ചിലപ്പോൾ കിട്ടാണ്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അന്നേ അന്നേ അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല ലൈക്ക് ബേസിക് സെറ്റ് ഇംഗ്ലീഷ് ടു മലയാളമാണെങ്കിൽ അങ്ങനെ എനിക്ക് സാധിക്കാൻ പറ്റും അങ്ങേ അറ്റത്ത് കഠിനമായ എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള വാക്കുകളുണ്ട് ളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ അതില് കുറച്ചേറെ ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ മലയാളം വായിക്കാനായിട്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിന് എനിക്ക് വിഷയം ഇല്ല